സാഹിത്യത്തിലും കവിതയിലും മറ്റ് കലാരൂപത്തിലുമൊക്കെ മലയാളം ഭാഷ ഉപയോഗിക്കുന്നത് വളരെ ഭംഗി ആയിട്ടുള്ള രീതിയിലാണ് ഒരു അലങ്കാര ഭംഗി ഉണ്ടാവും ആ ഒരു കവിതയ്ക്കാണെങ്കിലും കവിതയിലൊക്കെ ആണ് കൂടുതലും അലങ്കാര ഭംഗിയോടുകൂടി നമ്മൾ മലയാള ഭാഷയെ ഉപയോഗിക്കുന്നുണ്ട് പൂക്കൾ വണ്ട് മേഘം മഴ അങ്ങനെ ഓരോ ഓരോന്നിനേയും അതിൻ്റെ നാനാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൂട്തലായിട്ട് ഭംഗി വരുത്തിയാണ് ഓരോ കവിതയും നമ്മൾ ചെയ്യുന്നത് അതേ പോലെ അതിൻ്റെ രചയിതാക്കളും കവികളുമൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ഭാഷാ ഭംഗിയും അതിൻ്റെ ഒരു അലങ്കാര ഭംഗിയും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് നോവൽക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിത കഥ നോവൽ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ഓരോ വാക്കുകൾക്കും ഒരു അലങ്കാര ഭംഗി ഒരു ഭംഗിയോട് കൂടിത്തന്നെ ആയിരിക്കും ആ ഒരു ഇത് വായിച്ചിട്ടുണ്ടാവുക നമുക്ക് അത് ബാക്കി വായിക്കാനുള്ള ഒരു മനസ്സിന് ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് ശൈലിയും അത് നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും നോവലാണെങ്കിലും കഥയാണെങ്കിലും നമുക്ക് അത് വായിച്ച് പൂർത്തിയാക്കാനായിട്ട് തോന്നും അങ്ങനത്തെ ഒരു ശൈലിയാണ് ലാണ് സാധാരണ എഴുത്തുകാരൊക്കെ അവർ എഴുതി തീർക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് സാഹിത്യമായാലും കവിതയിലൊക്കെ നമുക്ക് മലയാള ഭാഷയ്ക്ക് നല്ലൊരു ഭംഗിയോടൂ കൂടിത്തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കാൻ എന്നാൽ അങ്ങനെ ഒരു ഉപയോഗമാണ് ഞാൻ കണ്ടിട്ടുള്ളത്